ചിത്ര രചനയിൽ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്കേ റബ്ബറും സ്കേലും ഇല്ലാതെ വരക്കുന്നതാണ് വെറും പെൻസിൽ കൊണ്ട് മാത്രം നമ്മൾ വരയ്ക്കുമ്പോൾ ചില അളവുകൾ തെറ്റുകയും പെൻസിൽ ഡ്രോയിങ് ആണെങ്കിൽ അത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ് മുടിയിഴകളും കണ്ണുകളും വരയ്ക്കുമ്പോൾ ഏറ്റവും കഷ്ടം കണ്ണ് മുഖത്തെ കണ്ണുകൾ വരയ്ക്കുമ്പോളാണ് പല സമയത്തും നോക്കി വരക്കാറുള്ള ഞാൻ ആ ഭാഗങ്ങൾ അതുപോലെത്തന്നെ വരുത്താൻ ശ്രമിക്കുമ്പോൾ പല തെറ്റുകളും സംഭവിക്കാറുണ്ട് വളരെ ഏറെ കഷ്ടപ്പെടുന്ന വളക്ക് വരക്ക് ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ വളരെ ഏറേ കഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണത് നോക്കി വരയ്ക്കാറുള്ളപ്പോൾ കണ്ണുകളിലെ ആ ഭാവം എനിക്കൊരിക്കലും വരച്ചു കഴിഞ്ഞു കിട്ടാറില്ല അത് ഞാൻ എൻ്റെ വര വരയ്ക്കുന്ന വരയ്ക്ക് വരയ്ക്കുന്നിടത്തോളം കാലം ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യമായി കരുതുന്നു അതിനേ ഞാൻ മറികടക്കുന്ന രീതി എന്നു പറയുന്നത് ആദ്യം തന്നെ സ്കെയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അള അളക്കാനുള്ള വല്ലതും എന്തെങ്കിലും സ സാധനമെടുത്ത് കണ്ണുകളുടെ സ്ഥലങ്ങൾ ഞാൻ ആദ്യം തന്നെ കണ്ണുകൾ മുഖത്തിൻ്റെ വശങ്ങൾ വരച്ച് കണ്ണുകളുടെ സ്ഥാനം എവിടെ ആണെന്ന് ഞാൻ അടയാളപ്പെടുത്തും അതിനുശേഷം കണ്ണുകളിൽ കണ്ണുകളെ കണ്ണുകളെ നാല് വശങ്ങളാക്കി തിരിച്ച് അതിനേ ഓരോ ഭാഗത്തടയാളപ്പെടുത്തുകയും അതിനെ ഞാൻ പറ്റാവുന്ന രീതിയിലെല്ലാം കാണുന്ന രീതിയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് മാത്രമല്ല മുടിയിഴകൾ വരയ്ക്കുമ്പോൾ പല ഭാഗങ്ങൾ നന്നായി മാറ്റുകയും പെൻസിലിൻ്റെ മുന കൂർപ്പിക്കുകയും ചെയ്യാറുണ്ട് മാത്രം അല്ല വര വരക്കാൻ ഏറ്റവും ബുദ്ധിമു വരക്കുമ്പോളുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പെയിന്റിങ്ങിലാണ് അതായത് പലപ്പോഴും പെയിന്റ് കട്ട പിടിക്കുകയും ബ്രഷ് കേടുവരികയും ചെയ്യാറുണ്ട് അത് വരയ്ക്കുമ്പോൾ വളരെ ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും ഒന്നാമത്തെ ഒന്നാമത്തെ പ്രശ്നം ഈ പെയിൻറ് കട്ട പിടിക്കുന്നതാണ് പല ലോ ക്വാളിറ്റി കുറഞ്ഞ പെയിന്റുകൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ പെയിന്റിങ്ങിനെ വളരെ ഏറെ ബാധിക്കാറുണ്ട് ആ ബ്രഷായാലും അതൊരു ഒരു ഒരു പ്രത്യേക ഇതു കഴിഞ്ഞു പ്രത്യേക സു കാലം കഴിഞ്ഞാൽ ആ ബ്രഷിലെ ഇഴകൾ കേടുവരികയും അത് വല്ലാതവരേ ബാധിക്കുകയും ചെയ്യാറുണ്ട് മാത്രമല്ല ഇതിന് പരിശീലനമായി ക്വാളിറ്റി ഉള്ള പെയിന്റുകൾ വാങ്ങുകയും ബ്രഷ് നല്ല രീതിയിൽ നനയാതെ സൂക്ഷിക്കുകയും അപ്പപ്പോൾ തുടച്ചു വെക്കുകയും ചെയ്യാറുണ്ട് മാത്രമല്ല ഈ പെയിന്റിൽ ഏറ്റവും വലിയ ഏറ്റവും ക പെയിന്റിങ്ങിൽ വരെ വരക്കുന്നതായാലും ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത് അത് വൃത്തിയോടെ സൂക്ഷിക്കുക എന്നതാണ് പല സമയത്തും മായ്ക്കുമ്പോൾ ആ പേജുകൾ കീറി പോവുകയും അത് വളരെ ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട് പെൻസിലുകളിൽ പെൻസിലിൻ്റെയും പെൻസിൽ ക്വാളിറ്റി ഇല്ലാത്തതും പെയിന്റ് ക്വാളിറ്റി ഇല്ലാത്തതും എല്ലാം ക്വാളിറ്റി ക്വാളിറ്റിയില്ലായ്മ വരക്കുന്നതിനെ വളരെ ഏറെ ബാധിക്കാറുണ്ട് ചില സമയങ്ങളിൽ വരക്കുന്നതിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതിന് കിട്ട അതിന് കിട്ടേണ്ട സമയം കിട്ടാതെ പോകുന്നതാണ്